ഹാലോ നമസ്കാരം വാതര് വാട്ടർ അതോരിറ്റി അല്ലെ ആഹ്ഹ എൻ്റെ പേര് സന്ദീപ് എന്നായിരുന്നു ഈ ഞാൻ നമ്മുടെ മുണ്ടക്കയം ഭാഗത്ത് നിന്ന് വിളിക്കുവായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ ഈ പുതുതായി ഉണ്ടാക്കിയ റോഡിന് നടുക്ക് കൂടെയാണ് കഴിഞ്ഞ ദിവസം വാട്ടർ അതോരിറ്റി പൈപ്പ് വലിക്കാനെന്ന് പറഞ്ഞ് റോഡെല്ലാം കൂടെ പൊളിച്ച് ഇല്ല കേന്ദ്രത്തിൻ്റെ തീരുമാനം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഈ പുതിയ റോഡ് പണിയുന്നതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് വന്ന് എപ്പഴും പൈപ്പിടാൻ വേണ്ടി അത് വെട്ടി പൊളിക്കും എന്നിട്ടത് മൂടാതെ അങ്ങോട്ട് പോവും നിങ്ങൾ സർക്കാരിൻ്റെ പേരിലിടും ഞങ്ങളിതാരെ വിളിച്ചാണ് പറയണ്ടത് ഞങ്ങളിവിടെ ഇപ്പോൾ ഇത് പൊളിച്ചത് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലെ അല്ല നിങ്ങളുടെ ഇഷ്ടത്തിനാണോ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഉത്തരവ് ഒരിക്കലും ഇത് പൊളിച്ചിട്ട് ഇത് മൂടാതെ പോകാനല്ലാലോ ഉത്തരവ് എപ്പഴും പൊളിച്ചു കണക്ഷൻ കൊടുക്കാനാണെന്ന് ഉള്ള കാര്യം എനിക്കറിയാം പക്ഷെ നിങ്ങളിത് പൊളിച്ചിട്ട് അത് പോലെ തന്നെ ഇട്ടിട്ട് പോകുക എന്നുള്ളത് ഏത് ഉത്തരവാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പൂർത്തിയാക്കരുത് എന്ന് എവിടേലും പറഞ്ഞിട്ടുണ്ടോ അല്ല വികസനമാണ് അത് അ വികസനമാണ് വികസനം അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ റോഡ് കുത്തി പൊളിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് അത് പോലെ കോ പൈപ്പിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് പോകണം അതാണ് വികസനം ഇതിപ്പോൾ ഈ മുണ്ടക്കയത്ത് നിന്ന് നമ്മുടെ ഇരുപത്താറിലോട്ട് പോകുന്ന വഴി ആ ഭാഗത്ത് പൈപ്പ് ഇട്ടു റോഡിൻ്റെ സൈഡിൽ അത് നല്ല രീതിയിൽ ടാർ ചെയ്ത് കഴിഞ്ഞ വർഷം പോയ റോഡായിരുന്നു അത് പൊളിച്ചു ആ ഇ അതാ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണ് അതാ നിങ്ങൾ തന്നെ പറയുന്നത് എല്ലായിടത്തും ഞങ്ങൾ ഇങ്ങനെ ചെയ്തന്ന് അതാ പറഞ്ഞത് ഇത് തെറ്റായ കാര്യമാണ് ആ ഇതിനൊരിക്കലും ആരും ഇങ്ങനെ ചുണ്ടി കാണിക്കാൻ വരാത്തത് കൊണ്ട് നിങ്ങളിതിനെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളും നിങ്ങളും പഞ്ചായത്തും കൂടെ നിങ്ങൾ വളരെ ചുരുക്കം പൈസ കൊണ്ട് പഞ്ചായത്തിൽ കെട്ടി വെച്ചിട്ട് ഇത് പൊളിക്കാനുള്ള പെർമിഷനെടുക്കും എന്നിട്ട് നിങ്ങൾ ആ പൈസ തിരിച്ചുമേടിക്കാതിരിക്കും അവരത് പണിയാൻ പറയത്തുമില്ല ഈ കളി നടക്കുന്നത് ഞങ്ങളറിയുന്നുണ്ട് ഇത് ഇത് നമുക്ക് ഇത് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ഇത് ഇ ഇ സംഭവം ഒരു ഒരാഴ്ചക്കുള്ളിൽ പണിത് തന്നില്ലെങ്കിൽ വിവരാവകാശം നിയമപ്രകാരം ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുകയാണ് അതും അതും ഇവിടെ വെള്ളം വരുന്നത് ആഴച്ചയിലൊരിക്കലാണ് അല്ല എന്നും വെള്ളം വരുന്നതാണേൽ നമ്മളിത് സഹിക്കും ഇത് വെള്ളം വരുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ് അതിന് വേണ്ടി അതിനു വേണ്ടി നിങ്ങൾ ഈ വാ നല്ല പോലെ പണിതിട്ട റോഡ് കുത്തിപൊളിച്ച് ഇനിയിത് പഞ്ചായത്തിനോട് ചോദിച്ചാൽ പറയും അവർ പറയും ഇത് അഞ്ചു വർഷം കഴിഞ്ഞ ഈ പദ്ധതി ഈ റോഡ് കാലാവധി അഞ്ചു വർഷം ആണ് ആ അഞ്ചു വർഷം കഴിഞ്ഞേ ഞങ്ങൾ പണിയുന്നുള്ളു നിങ്ങളോട് വിളിച്ചാൽ നിങ്ങൾ പറയും ഞങ്ങൾ ഇവിടെ ഇത് കെട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പണി എന്ന് പറഞ്ഞ പൈപ്പ് ഇടുന്നതാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊതു ജനത്തിനെ തട്ടിക്കളിച്ച് മണ്ടനാക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് നിങ്ങളൊരു പദ്ധതി എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തരുന്ന കാശിനുള്ളിൽ അത് തീർത്ത് കമ്പ്ലീറ്റാക്കി അല്ല പൈപ്പ് വലിക്കുന്നത് മാത്രം അല്ല അത് കമ്പ്ലീറ്റാക്കി അവിടെ എന്തേലും ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും തീർത്ത് പോവാനുള്ള പ്ലാനിംഗ് വേണം അത് നിങ്ങൾക്ക് പറ്റത്തിലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയണം ആഹ്ഹ അതെ ആഹ്ഹ ആഹ് അതെ അതെ ആഹ് ശരി എന്നാൽ